പക്ഷി നിരീക്ഷണം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു രസകരമായിട്ടുള്ള ഒരു നമുക്ക് ഒരു തീർച്ചയായിട്ടും രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ചെ തി രസകരമായിട്ടുള്ള ഒരു പ്രവർത്തിയാണ് പക്ഷികളെ നിരീക്ഷിക്കാൻ പ്രധാനമായും ഞാൻ ഉപയോഗിക്കുന്നത് അവരുടെ സൗ അവരുടെ ആ ഒരു ശബ്ദം സൗണ്ടിലൂടെയാണ് അവയെ തിരിച്ചറിയുന്നത് പിന്നെ നമുക്ക് അറിയാത്ത എത്രയോ തരം പക്ഷികൾ ഈ ഒരു പ്രകൃതിയിൽ ഉണ്ട് നമ്മൾ കേട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടോ ഇല്ലാത്ത പലതരം പക്ഷികളുണ്ട് അതിനെ അങ്ങനെ പക്ഷികളെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ പ്രകൃതിയുടെ ഉൾത്തട്ടിലേക്ക് പോകണം വിവിധ തരം കാടുകളിലോട്ട് പോകണം അങ്ങനെ പല നിറത്തിലും പല രൂപത്തിലും പല ശബ്ദത്തിലുള്ള പല പക്ഷികൾ നമുക്ക് കാണാൻ സാധിക്കും കുറച്ചൊക്കെ പക്ഷികളെ കാണുമ്പോൾ മനസിലാകും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആ നമ്മൾ മുതിർന്നവരുടെ സഹായം ഉപയോഗിച്ച് അവയെ തിരിച്ചറിയാൻ നോക്കും അല്ലെങ്കിൽ ഗൂഗിൾ അങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ പക്ഷികളെ തിരിച്ചറിയാൻ സാധിക്കും